നമ്മുടെ ഭാഷ മലയാളമാണ് അത് അതിനെയാണ് എന്റെ ഇത് വെച്ചെനിക്ക് ഹിന്ദിയറിയാം ഇംഗ്ലീഷ് അറിയാം മറാഠി യറിയാം പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം മലയാളം തന്നെയാണ് നമുക്ക് സംസാരിക്കാനും നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങളെല്ലാം ശരിക്കും മറ്റുള്ളവരോട് ഡീൽ ചെയ്യാനായിട്ട് നമ്മുടെ നാട്ടിൽ മലയാളം തന്നെയാണ് എനിക്കിഷ്ടം പിന്നെ ഹിന്ദിയൊക്കെ കുഴപ്പമില്ല എന്നുപറഞ്ഞാലും മലയാളമാണ് മറ്റു മറ്റ് ഭാഷകളെക്കാളും നല്ലത് പക്ഷെ പുറത്തെവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിൽ നമ്മൾ മലയാളം കൊണ്ടുപോയിട്ട് കാര്യമില്ല കാരണം മലയാളം ഒരുവിധപ്പെട്ടതൊന്നും മനസ്സിലാവത്തില്ല യൂറോപ്യൻ കൺട്രീസ് ഗള്ഫ് നാടുകളിലൊക്കെ പോയാൽ അവര്ക്കൊന്നും തന്നെ മലയാളം മനസ്സിലാവത്തില്ല പക്ഷെ ഹിന്ദിയാണെങ്കിൽ കുറേ ഹിന്ദി എന്നുവെച്ചാൽ കേരളത്തിനു പുറത്തുള്ളവര്ക്ക് ഹിന്ദി അങ്ങനെയുള്ള ഭാഷകളൊക്കെയാണ് അപ്പോൾ അവര്ക്കൊക്കെ പുറത്തുപോയി കഴിയുമ്പം നമ്മുടെ നാട്ടിലെ ആള്ക്കാരുമായിട്ട് സംസാരിക്കുന്നത് ഹിന്ദിയാണ് ഇതനുയോജ്യമായ ഭാഷ ഹിന്ദിയല്ല ഇംഗ്ലീഷാണ് പക്ഷെ നമ്മുടെ മറ്റുള്ള ഭാഷയിലോട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഭാഷ തന്നെയാണ് നല്ലതായിട്ട് എനിക്ക് തോന്നുന്നത് മതി